ദൈനംദിന സംഭാഷണങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാന മലയാളം ഭാഷയിലെ ചില പൊതുവായ പദപ്രയോഗങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാല് ഒരുപാടുണ്ട് നമ്മളെ അതായത് ഏതൊക്കെ എന്നാല് അവ നീ എവിടെ പോയോ പോയി പിന്നെ അഥവാ പിന്നെ പലതും അങ്ങോട്ട് ഇങ്ങോട്ട് ഇവ അതെടുക്കുക ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പദപ്രയോഗങ്ങള് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇതു കൂടാതെ വിളിക്കൂ അതുപോലെ പറയൂ പോകൂ അവിടെ പോകു അതുപോലെ ഇത്രത്തിലുള്ള ഒരുപാട് പൊതുവായ പദപ്രയോഗങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നതുപോലെ അച്ഛൻ അമ്മ ഉമ്മ ഉപ്പ അതൊക്കെ നമ്മള് എപ്പഴും വിളിക്കുന്ന ഒരു കാര്യം മോളെ അതൊക്കെ നമ്മളുപയോഗിക്കുന്ന ഭാഷകളാണ് പൊതുവായിട്ട് നമ്മള് ഡെ ദേ ഡെയിലി പറയുന്ന മലയാളം ഭാഷയിലെ ചില പദപ്രയോഗങ്ങളാണ്